എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നു പറയണത് മത്തങ്ങ പുളിങ്കറിയും ചോറും അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് അച്ചിങ്ങ മെഴുക്കുവരട്ടി അത് അമ്മ ഉണ്ടാക്കുന്നതെന്നാൽ അമ്മ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തിനോടാണ് കൂടുതൽ താല്പര്യം എന്തുകൊണ്ടെന്ന് വച്ചാൽ മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കണ വിധം എന്ന് പറയണത് നമ്മൾ പരിപ്പ് വേവിച്ചതിന് ശേഷം മത്തങ്ങ കഷണങ്ങൾ ഇട്ട് വേവിക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉപ്പും പാകത്തിനിട്ട് അത് അങ്ങനെ വേവിച്ച് എടുത്തയിനുശേഷം ആ ആ കറി താളിക്കണം താളിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേ കൊല്ലം മുളക് കടുക് കറിവേപ്പില എല്ലാം ഇട്ട് താളിച്ചതിനുശേഷം അത് ചോറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽപ്പിന്നെ ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ ഉപയോഗിക്കാം പയർ മെഴുക്കുപുരട്ടി എന്നു പറയണത് നല്ല നാടൻ പയർ നമുക്ക് മേടിക്കാൻ കിട്ടും അത് നമ്മൾ നല്ല രീതിയിൽ കുതിർത്ത് എടുത്ത് നമ്മൾ വെള്ളത്തിൽ വേവിച്ച് കൊല്ലം മുളകും മറ്റേ ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് ഇട്ടിട്ട് നല്ല ഫ്രൈയായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഈ പയർ മെഴുക്കുവരട്ടി എന്നു പറയുന്നത് അതിനെയെല്ലാം കൂടി നമ്മൾ കൂടുതൽ കഴിക്കാൻ കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്മ വിളമ്പിത്തരമ്പും അതിൽ പ്രത്യേക സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് എൻ്റെ ഇത് ഈ ഭക്ഷണം